ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി പിന്നെ വോളിബോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ക്രിക്കറ്റിലും ഫുട്ബോൾ ആണ് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹരമായിട്ടുള്ളത് ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പ്രശസ്തരായ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരാട് കോഹ്ലി മഹേന്ദ്ര സിംഗ് ധോണി പിന്നെ സച്ചിൻ സച്ചിനൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെഞ്ചുറികളൊക്കെ അടിച്ച ആളാണ് സച്ചിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ ഫുട്ബോൾന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി നെയ്മർ പിന്നെ എംബാപ്പെ പിന്നെ അത്പോലെ റൊണാൾഡോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അതായത് ഇന്ത്യൻ പിന്നെ വേൾഡ് വേൾഡ് കപ്പിൽ ഒക്കെ കളിച്ച വേൾഡ് കപ്പിന്റെ ടൈം ഒക്കെ എല്ലാ ടൈമിലൊക്കെ എല്ലാവരും ഒരുപാട് ടി വിന്റെ മുന്നിലൊക്കെ ഇരുന്നിട്ടുണ്ട് ഇതിലിപ്പോൾ ആരാ ജയിക്കാന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം മെസ്സിന്റെ ടീം ആണ് ജയിച്ചത് അർജന്റീന ആണ് ജയിച്ചത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പിന്നെ കായിക കായിക ഇന്ത്യയിലെ ജനപ്രിയ കായിക വിനോദങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ